ഇന്റർനെറ്റ് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടന്റായ ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാന്ന് പ്രായമായാലും പ്രായം കൂടിയവരായാലും അല്ല ചെറുപ്പക്കാരായാലും മധ്യമ വയസുകാർ ആയാലും എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാന്ന് ഈ ഒരു കാലത്ത് ഈ ഒരു കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഇന്റർനെറ്റിലൂടെയാണ് നമ്മള് സംസാരിക്കുന്നതും നമ്മുടെ കൂട്ടുകാരുണ്ട് കാട്ടുകാരന്മാരോട് അല്ലെങ്കിൽ ഓഫീസ് കൊളീഗിനോട് ടീച്ചേർസിനോട് സ്റ്റുഡൻസിനോട് എല്ലാവരോടും കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലി മെബേഴ്സിനോട് എല്ലാവരോടും കോണ്ടാക്റ്റ് ചെയ്യുക ഇന്റർനെറ്റ് വഴിയാണ് വാട്സാപ്പ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക് എന്നിവയാണ് പിന്നെ മനോരഞ്ജനൻ ത്തിന്റെ ഏറ്റവും ഇമ് ഇംപോർട്ടന്റായ ഒരു സംഭവ മാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് കാണാനും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാനും ഒക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇന്റർനെറ്റാണ് അതുകൊണ്ട് ഇന്റർനെറ്റ് ഞാൻ ഞാൻ ഡെയിലി എത്ര യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നര ജി ബി യാണ് എന്റെ ഇന്റർനെറ്റ് പാക്കേജ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ജി ബി വരെ ശരാശരി ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അത് എജ്യൂക്കേഷൻ പർപ്പസായാലും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസായാലും ഡാറ്റ ആണ് ഞാൻ യൂസ് ചെയ്യാറ് പൊതുവേ വൈഫൈ അല്ല ഡാറ്റ ആണ് മൊബൈൽ ഡാറ്റ അപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്റെ വീട്ടിൽ യൂസ് ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴോ പതിനെട്ടോ എങ്ങാണ്ടാണ് നമ്മള് വീട്ടില് ഇന്റർനെറ്റ് തുടങ്ങിയത് തന്നെ പതിനേഴാണ് എന്റെ ഓർമ്മയിൽ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളൊക്കെ മൊബൈല് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല പൊതുവേ സ്വിച്ച് ഫോണും കോള് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അന്നേരം ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടില് പുറത്ത് ഉണ്ടായിക്കാണും നമ്മുടെ വീട്ടില് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് എങ്ങാണ്ടാകുമ്പോൾ മൊബൈലൊക്കെ വാങ്ങി അന്നേരമാണ് ഇന്റർനെറ്റ് എന്ന് തുടങ്ങിയത് ഇന്റർനെറ്റ് അന്നേരം എന്ന് പറയുന്നത് ടു ജി ബി ടു ജി ബി പി എസ് ടു ജി ബി പി എസ് അല്ല സോറി ടു ജി ഇന്റർനെറ്റാണ് ആ സമയത്ത് ഉണ്ടായത് ടു ജി എന്ന് പറയുന്ന ഇന്റർനെറ്റാണ് ത്രീ ജി ഉണ്ടായിരുന്നു പക്ഷെ ത്രീ ജിക്ക് ഒരുപാട് പൈസ ആയിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എങ്ങാണ്ടാണ് ത്രീ ജിക്ക് ഒരുപാട് പൈസ ആയത് കൊണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് മാസത്തില് അൺലിമിറ്റഡ് നെറ്റ് പാക്കെന്ന് ടു ജി ഇന്റർനെറ്റ് സ്പീഡിന്റത് നമ്മളൊരു റീച്ചാർജ് ചെയ്യുവായിരുന്നു അതിലായിരുന്നു നമ്മുടെ എല്ലാ കളികളും ആ സമയത്ത് ടോം ടോക്കിങ്ങ് ടോം എന്ന് പറഞ്ഞ ഗെയിം കാൻഡി ക്രഷ് എന്ന് പറയുന്നൊരു ഗെയിം പിന്നെ ടെമ്പിൾ റൺ എന്ന് പറയുന്ന ഗെയിമും അതൊക്കെ കളിച്ച് കൊണ്ട് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പിന്നെ മിനി മിലീശാ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നത് ഇന്റർനെറ്റ് വഴിയാണ് പ്ലൈ സ്റ്റോറ് വഴിയാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റ് കാണുന്നത് വീട്ടില് ഒരുപാട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റിലായിരുന്നു ആ പൂച്ചയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് തിരിച്ചു സംസാരിക്കുന്നതും പിന്നെ കാൻഡി ക്രഷ് കളിക്കുന്നതും ടെമ്പിൾ റണ് വഴി ന്യൂ റെക്കോഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഇന്റർനെറ്റ് കാരണാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ ആ ഒരു ടു ജി ബി ടു ജി ഇന്റർനെറ്റ് വഴി നമ്മൾ ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്യുവയിരുന്നു എന്റെ ഏട്ടനായിരുന്നു ഫിലിം ഡൗൺലോഡ് ചെയ്യാറ് അതിന് ഏകദേശം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ എടുത്തിട്ടാണ് ഒരു ഫിലിം ഡൗൺലോഡ് ആവുക കാരണം ടു ജി ഇന്റർനെറ്റ് സ്പീഡിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നതാണ് എത്ര സ്ലോയാണ് കെ ബി ആണ് അതിന്റെ സ്പീഡ് ടു ജി ഇന്റർനെറ്റ് പറഞ്ഞാൽ കെ ബി യാണ് സ്പീഡ് ഉണ്ടാകാറ് അപ്പോൾ അത് നമ്മള് രാത്രി വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചക്കോ അങ്ങനെ എങ്ങാണ്ട് ഡൗൺലോഡ് ആയി കിട്ടും ഒരു ഫിലിമ് എന്നിട്ട് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വളരെ ഒരു എന്താ പറയുക അത് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു സംഭവമാണ് ഇന്റർനെറ്റ് അന്നേരം നമ്മള് യൂസ് ചെയ്തോണ്ടെ പിന്നീട് പെട്ടന്നൊരു ദിവസം ജിയോ എന്ന് പറയുന്ന അംബാനി ഇറക്കി ജിയോ എന്ന് പറയുന്നൊരു സിം അതിന് വേണ്ടിയിട്ട് ജിയോ ഫോൺ ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫോൺ അന്നേരം വന്നു ജിയോയുടെ ഫോണായിരുന്നു അപ്പോൾ അതില് ഇന്റർനെറ്റ് പാക്കേജ് നമുക്ക് കിട്ടുവായിരുന്നു അതായത് ഇന്റർനെറ്റ് പാക്കേജ് ഒന്നിച്ചു ഒരു കൊല്ലം ഒരു കൊല്ലത്തെ ഇന്റർനെറ്റ് ഫ്രീ ആയി അതായത് ഫോർ ജിയാണ് നമ്മൾ ഇതുവരെ ത്രീ ജിവരെ വീട്ടില് യൂസ് ചെയ്യാത്ത സമയത്താണ് നമുക്ക് ഫോർ ജി ഇന്റർനെറ്റ് പാക്കേജ് വരുന്നത് വീട്ടിൽ തുടങ്ങിയത് അതായത് എത്ര എന്ന് വെച്ചാൽ ഫോണിന് വളരെ പൈസ കുറഞ്ഞതും ഇന്റർനെറ്റ് ഫ്രീയും ഫോർ ജി ഒരു കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ടും കിട്ടുന്ന പോലത്തെയൊരു സംവിധാനം അന്നേരം ഉണ്ടായി കഴിഞ്ഞു ഉണ്ടായ ശേഷം ആ നമ്മള് വീട്ടില് ഡെയിലി അത് യൂസ് ചെയ്ത് തുടങ്ങി ഫോർ ജി എന്ന് പറയുന്ന വളരെ സ്പീഡ് കൂടിയ ഇന്റർനെറ്റാണ് നമുക്ക് ഒരുപാട് പരിചയവും ഇല്ല ഫോർ ജി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മള് ലൈഫ് ഫോണ് മേടിച്ചു ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം ഫ്രീ ആണല്ലോ അങ്ങനെ മേടിച്ച ശേഷം അന്നേരം ജിയോയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ആ സമയത്തൊക്കെ വളരെ എന്ന് വെച്ചാൽ നമുക്ക് ഈ കുറ്റിയാണ് നമ്മുടെ കണക്ക് പൊതുവേ പറയാറ് നാല് കുറ്റിയാണെങ്കിൽ ഫുള്ള് റേഞ്ച് മൂന്ന് കുറ്റിയാണെങ്കിൽ കുറച്ചു കുറവ് അങ്ങനെ അന്ന് ആ സമയത്ത് ഒരു കുറ്റി പോലും മര്യാദയ്ക്ക് ഇല്ലാത്തൊരു സമയമായിരുന്നു ജിയോ വന്ന സമയത്ത് ഫോർ ജി ഇന്റർനെറ്റ് വന്ന സമയത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു വീട്ടിൻ്റെ അറ്റത്തൊക്കെ പോയി ഇരുന്നിട്ടായിരുന്നു നമ്മള് യൂട്യൂബ് ഒക്കെ കാണാറ് ഫോർ ജി വെച്ചിട്ട് ആ ഒരു കഷ്ടപ്പാട് ഞാൻ ഇന്നും ഓർക്കുന്നു ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നീട് മെല്ലെ മെല്ലെ ആയി ജിയോടെ ഇത് കൂടി യൂസേജ് കൂടി അങ്ങനെ ജിയോടെ ഫോർ ജി വേണ്ടിയിട്ട് അവര് ടവറ് കുറെ കെട്ടി കഴിഞ്ഞു പണിഞ്ഞു ടവറ് കുറെ പണിഞ്ഞു നെറ്റ് വർക്ക് ടവർ അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ നെറ്റ് വർക്ക് നല്ല ഇംപ്രൂവ് ആയി തുടങ്ങി എല്ലാ സ്ഥലത്തും ഏകദേശം ഇന്റർനെറ്റ് നല്ലോണം കിട്ടുന്നത് പോലെ സ്റ്റാർട്ടായി തുടങ്ങി പിന്നെ പിന്നെ എപ്പഴാണ് ഫോർ ജി നമ്മള് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പിന്നെ ബാക്കി ഏത് നെറ്റ് വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി അതായത് ത്രീ ജിയോ ടു ജിയോ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചേ ഇല്ല ഫോർ ജിയാണ് മസ്റ്റ് എല്ലാവരും വീട്ടിലത്തെ ഏകദേശം എല്ലാവരും ഫോർ ജി യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്കെ ആകുമ്പോൾ പത്തൊമ്പതോ ഒക്കെ ആകുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണൊക്കെ കിട്ടി ഞാന് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി പോകുന്ന സമയത്താണ് എനിക്ക് ഫോണൊക്കെ കിട്ടിയത് അന്നേരം അന്നേരമാണ് ആദ്യമായിട്ട് എനിക്ക് ഫോൺ കിട്ടിയത് തന്നെ അതുവരെ ഞാന് അമ്മയുടെ ഫോണിലോ അങ്ങനെയൊക്കെ നോക്കിയാണ് ഞാൻ എന്റെ ഏട്ടനും ഒക്കെ നോക്കി കൊണ്ടായത് അങ്ങനെ പിന്നെ ഫോണ് കിട്ടിയ ശേഷം എന്റെ ആദ്യത്തെ ഫോണ് എന്ന് പറയുന്നത് റിയൽമി സിക്സ് എന്ന് പറയുന്ന നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഫോണായിരുന്നു എനിക്ക് ആദ്യായിട്ട് കിട്ടിയ ഫോണ് ആദ്യമായിട്ട് പുതിയ ഫോണ് കിട്ടിയത് അതുവരെ അമ്മയുടെ ഫോണൊക്കെ യൂസ് ചെയ്തായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് നെറ്റ് വർക്കിന് വേണ്ടി നെറ്റ് വർക്ക് അതില് ഫോർ ജി സിമ്മ് രജിസ്റ്റർ ചെയ്തു റിയൽമി സിക്സ് എന്ന് പറയുന്ന ഫോണില് ഫോർ ജി സിമ്മ് രജിസ്റ്റർ ചെയ്തു ഞാന് എന്റെ ഞാന് യുട്യൂബിലൊക്കെ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പാട്ടിന്റെയോ അല്ലോ എജ്യൂക്കേഷന്റെയോ അല്ല എന്റർ ടൈം പാസ്സ് കോമഡിയോ അതൊക്കെ കണ്ട് തുടങ്ങി ഡെയിലി ഏകദേശം ആവറേജ് ഒരു ജി ബി എന്തായാലും ഇൻറ്റർനെറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞ നിലയ്ക്ക് എത്തി കാരണം ഇന്നത്തെ കാലത്ത് ഒരു ജി ബി ഇൻറ്റർനെറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമല്ല കാരണം അത്രയും ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോർ ജി എന്ന് പറയുന്ന എത്ര പെട്ടന്ന് തീരുമെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത് തീരുന്നത് അറിയാത്തൊരു സംഭവമാണ് ഫോർ ജി ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി വളരെ ഉപകരമായ ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളതില് പോസറ്റീവ് നോക്കിയാൽ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ജോബ് ചെയ്യാൻ ഫോർ ജി ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് കാരണം ത്രീ ജിയിൽ ഒക്കെ ഇന്നത്തെ കാലത്ത് പണി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ഫൈവ് ജി വരെ വന്ന് കഴിഞ്ഞു അങ്ങനത്തെ ഒരു സമയത്ത് നെറ്റ് വർക്ക് സ്പീഡില്ലാന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ് ഞാൻ നെറ്റ് വർക്ക് പ്രോബ്ലം അതുതന്നെ ഫോർ ജി വന്ന സമയത്ത് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ അതിന് ശേഷം എപ്പഴേലും മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഒരിക്കൽ എങ്ങാണ്ടാണ് നെറ്റ് വർക്ക് പ്രോബ്ലം ഞാൻ അനുഭവിച്ചത് തന്നെ കാരണം നമ്മുടെ ഏരിയയിലങ്ങനെ നെറ്റ് വർക്ക് പ്രശ്നങ്ങളൊന്നും പൊതുവേ വരാത്ത ഒരു ഏരിയയാണ് അപ്പോൾ നെറ്റ് വർക്കിന് ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ ആണ് ഞാൻ നെറ്റ് വർക്ക് യൂസ് ചെയ്യുന്നത് നെറ്റ് വർക്ക് ഡാറ്റ ഒരുപാട് ഉപയോഗകരമാണ് ഡാറ്റയായാലും വൈഫൈ ആയാലും എന്തായാലും വൈഫൈ അയാൽ ഇച്ചിരി സ്പീഡ് കൂടുതൽ ആയി കിട്ടും ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വൈഫൈ വളരെ നല്ല ഉപയോഗം ഉള്ളൊരു സംഭവമാണ് ഡാറ്റ പാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പോയ സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കില് ഡാറ്റ പാക്ക് വേണം കാരണം വൈഫൈ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പുറത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഡാറ്റ പാക്ക് മസ്റ്റ് ആണ് പുറത്തു പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് ഫൈവ് ജി പിന്നെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് സ്പീഡ് ഉള്ള ഒരു സംഭവമാണ് പൊതുവേ എല്ലാ ചെറിയ ചെറിയ സിറ്റികളിലൊക്കെ ഉൾപ്രദേശത്തിലൊക്കെ കിട്ടാൻ ഇച്ചിരെ ബുദ്ധിമുട്ടാണ് ഫൈവ് ജി സിറ്റിയിലൊക്കെ ചെറിയ സിറ്റിയിലൊക്കെ അതായത് നമ്മുടെ ഇവിടെ ബദിയെടുക്കാ കുമ്പള മുള്ളേരിയ അങ്ങനത്തെ ചെറിയ ചെറിയ സിറ്റിയിലൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഫോർ ജി ഇന്റർനെറ്റ് ഫൈവ് ജി ഇൻറ്റർനെറ്റ് ഫൈവ് ജി ഫോർ ജി പൊതുവേ എല്ലാ ഉൾപ്രദേശത്തിലും കിട്ടുന്ന ഒരു സംഭവമാണിപ്പോൾ പയ്യേ ഇന്റർനെറ്റ് നമുക്ക് ഡാറ്റ പാക്കിൽ പുറത്തൊക്കെ സിറ്റി ചെറിയ ചെറിയ സിറ്റിയിലൊക്കെ കിട്ടും ഉൾപ്രദേശത്തില് കിട്ടാൻ കുറച്ചു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇപ്പഴത്തെ കാലത്ത് ഫൈവ് ജി വരെ വന്നു കഴിഞ്ഞു ഇന്റർനെറ്റിന് ഒരു പ്രശ്നവും ഇല്ലാത്ത കാലമാണ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയില് നാസ യൂസ് ചെയ്യുന്നത് ഏറ്റവും സ്പീഡ് കൂടിയ ജി ബി പെർ സെക്കൻറ്റിലുള്ള ഇന്റർനെറ്റാന്ന് അവർക്ക് വരെ ഇന്റർനെറ്റ് വളരെ ഉപയോഗകരമായ സംഭവമാണ് ഏതൊരു ഫീൽഡില് നമ്മള് നോക്കിയാലും ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ ഉപയോഗകരമായ ഒരു സംഭവമാണ് വളരെ അത്യാവശ്യമാണ് അതിന് അതുപോലെ തന്നെ കുറേ അനാവശ്യ കാര്യങ്ങളുമുണ്ട് കുറെ പേര് ഇന്റർനെറ്റിന്റെ കേസില് പോയി സൂയിസൈഡ് അറ്റംമ്ൻറ്റോ അങ്ങനെ കുറെ പേര് ചെയ്തവരും ഉണ്ട് പക്ഷെ കൂടുതലും അത് ലാഭകരമായിട്ടാണ് ഇന്റർനെറ്റ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റായൊരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആൾക്കാർക്ക് നല്ലോണം ബുദ്ധിമുട്ടാണ്